ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്കും ഓരോ പോലെയാണ് അവരുടെ വിഷയങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു ചിന്ത പോവുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്നു സംബന്ധിച്ചടുത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടമുള്ള വിഷയങ്ങൾ നമ്മൾക്ക് ഒരു ഓരോ വിഷയങ്ങൾ കിട്ടുന്നതും നമ്മൾ ചിന്തിച്ച് ചിന്തിച്ചാണ് നമുക്ക് ഓരോ വിഷയങ്ങൾ വരിക നമ്മൾ ചിലപ്പോൾ കാണുന്നത് നമ്മൾക്ക് കണ്ട് ഇഷ്ടം തോന്നിയത് അതെ പോലെ നമ്മുടെ മനസ്സിലെ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോയി ചിന്തിച്ച് നമ്മൾ ഇപ്പോൾ ഉള്ള ഈയൊരു ലോകത്തിൽ നിന്ന് മാറി നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് അവിടെ നിന്നുള്ള ആ ഒരു ആ ഒരു കാഴ്ചയാണ് നമ്മൾക്ക് വരയ്ക്കാൻ ഇഷ്ടം ഓരോരോ വരയ്ക്കുന്ന ആൾക്കാർക്ക് ഓരൊ ഏതൊരു ആർട്ടിസ്റ്റിനും അങ്ങനെ തന്നെയാണ് അവർക്ക് വരയ്ക്കാൻ തോന്നുന്നത് അവരുടെ ഭാവനയിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ എനിക്ക് വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പ്രകൃതി വരയ്ക്കാനോ അല്ലാതെ മറ്റ് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാനോ അല്ല ഇഷ്ടം എനിക്ക് ആ മനുഷ്യരുടെ മുഖം വരയ്ക്കാനാണ് ഇഷ്ടം ഒരുപാട് മനുഷ്യരുടെ ചിരിക്കുന്ന മുഖങ്ങളും കണ്ണുകളും ജീവൻ തുടിക്കുന്ന കണ്ണുകളുമൊക്കെ വരയ്ക്കാനാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഓരോ ആര്ട്ടിസ്റ്റുകള്ക്കും ഓരോ രീതിയായിരിക്കും ഓരോ കലാകാരന്മാര്ക്കും ഓരോ രീതിയാണ് അവർ കലയെ തൊടുന്ന ആ ഒരു രീതി പല രീതിയിലായിരിക്കാം എന്റെ രീതി വച്ച് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങൾ നോക്കി നമ്മൾ കണ്ട കാര്യം അതെപോലെ പകർത്തുക എന്നുള്ള രീതിയാണ് എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രീതിയെന്ന് പറയുന്നത് പല പെന്സിലുകളും പല നിറച്ചായങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് കളറുകൾ ഉപയോഗിച്ച് പക്ഷെ എനിക്ക് കളറുകളെക്കാളും ഇഷ്ടം പെന്സില് കൊണ്ടുള്ള ചിത്രം വരയാണ് പെന്സില് കൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു നേരിട്ട് കാണുന്ന ആ ഒരു എഫക്ട് കിട്ടാൻ പെൻസില് കൊണ്ട് ഒരുപാട് വിദ്യകളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിന്റെ ഷേഡിങ്ങിലും ഗ്രേഡിലുമൊക്കെ വ്യത്യാസം വരുത്തി നമ്മൾക്ക് ഏറ്റവും ഒർജിനാലിറ്റി ഉള്ള നമുക്ക് ശരിക്കും കാണുന്ന പോലെ തോന്നിക്കുന്ന ഒന്നാക്കി മാറ്റാന് ഏതൊരു പെന്സില് ചിത്രത്തിനും പറ്റും പിന്നെ നമ്മൾ നിറങ്ങൾ ആഡ് ചെയ്യേണ്ടത് നമ്മളാണല്ലോ നമ്മുടെ മനസ്സ് വച്ച് നമ്മുടെ കണ്ണുകളിലൂടെ കാണുമ്പോഴാണ് ഏതൊരു ചിത്രത്തിനും നിറമില്ലാത്ത ചിത്രത്തിനും നിറം വരുന്നത് നമ്മുടെ കാഴ്ച എങ്ങനെയാണോ അത് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഏതൊരു നിറമില്ലാത്ത ചിത്രത്തെയും നിറം കൊടുക്കാന് ഒരു കാഴ്ചക്കാരന് പറ്റിയാലേ ഈ ചിത്രങ്ങള്കൊക്കെ ഒരര്ത്ഥമുണ്ടാവുകയുള്ളു